ഇപ്പോള് പൊതുവേ കണ്ടുവരുന്ന ഒരിതാണ് ട്രെക്കിങ്ങിലൊക്കെ പോകുമ്പോഴായാലും മലകളിൽ എല്ലാം പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാണ് കാണുന്നത് ഒരു പക്ഷെ മല കയറാൻ പോകുന്നവരെല്ലാം പ്ലാസ്റ്റിക്ക് കൊണ്ടുവന്ന് ആരും കാണാത്തതുകൊണ്ട് അതിനെ വലിച്ചെറിയുന്ന ഒരു സമ്പ്രദായമാണുള്ളത് പക്ഷെ അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് മുമ്പത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും എല്ലാം ഓർത്തുകൊണ്ടുവേണം മിപ്പം ഒത്തിരിപേര് മലയിൽ പോകുന്ന ട്രക്കിങ്ങിന് പോകുവാൻ വളരെ താൽപ്പര്യമുള്ളതാണ് എന്നാൽ സർക്കാർ സംവിധാനങ്ങളും ഇതിനെയൊക്കെയൊരു മിച്ച സ്ഥാനങ്ങളിൽ വേസ്റ്റ് ബിന്നുകള് സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ് എന്നാല് ഞാനാണെങ്കിൽ പോവുമ്പോൾ സാധാരണ ചെയ്യാറെന്നുവച്ചാൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുപോവുകയും പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുപോവുമ്പോൾ ഞാനെൻ്റെ ബാഗിൽ തന്നെയാണ് ബാഗിൽ തന്നെ സൂക്ഷിക്കുകയാണ് പതിവ് അതുകൊണ്ടുതന്നെ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ യേനെ നല്ലൊരു രീതിയാണത് നമുക്ക് ഫലപ്രദമാ എല്ലാവരും കൂടെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാര ഇല്ലെങ്കിൽ നാടിനെ വൃത്തിയുള്ളതാക്കി മാറ്റുവാനായിട്ട് സാധിക്കു അതുകൊണ്ട് എല്ലാവരും അതിനുള്ള പരമാവധി ആളുകളതിന് പരിശ്രമിക്കേണ്ടതാണ് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളല്ലാതെ കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഇതൊക്കെ നമ്മുടെ സഞ്ചാരത്തിന് പോവുമ്പോള് പലർക്കും അസുഖങ്ങൾ വരുത്താവുന്നതാണ് പലപ്പോഴും ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ അല്ലാതെ പിന്നെ ചെറിയ ചെറിയ കുപ്പിവെള്ളങ്ങൾ അങ്ങനെ ഡ്രിങ്ക്സിൻ്റെ കുപ്പി ഇതെല്ലം നമ്മള് പൊതുവേ കണ്ടുവരുന്നതാണ് അതങ്ങു തോന്നിയിടത്ത് വലിച്ചെറിയും അതിനൊക്കെ നമ്മുക്കൊരു സംവിധാനങ്ങള് നിക്ഷേപിക്കാന് ചെറിയ ഒരിത് വേസ്റ്റ് ബിന്നുകളൊക്കെ നിലനിർത്തുന്നത് നല്ലതാണ് എല്ലാവരും നമ്മുടെ പരിസരത്തെ ശുദ്ധിയാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും കടമയായി കാണേണ്ടതാണ് എന്നാൽ മാത്രമേ നമ്മുടെ നാടിനെ നമ്മുടെ സമൂഹത്തെ നല്ല വൃത്തിയുള്ള സമൂഹങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും എല്ലാവരും പരിശ്രമിച്ചാൽ മാത്രമേ ഇതു നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ മാത്രം ഇട്ടിട്ട് പോവുക അങ്ങനെയില്ല നമ്മള് കൊണ്ടുപോവുന്നത് നമ്മള് തിരിച്ചുകൊണ്ടുവന്ന് ഒരേ സ്ഥലത്തുതന്നെ സൂക്ഷിക്കുക ഒക്കെ ചെയ്യും ഇത് ഞാൻ കൊണ്ടുപോകുന്ന സാധനം ഞാൻ തിരിച്ചുകൊണ്ടുവന്ന് വീട്ടിലൊക്കെ ഇപ്പോള് ആൾക്കാർക്ക് കൊടുക്കുക അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളുപയോഗിക്കുമ്പോൾ നമ്മുടെ നാടിനും നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അസ്സറ്റാണ് നമ്മുടെ നാടിനോട് നമ്മള് ചെയ്യുന്ന കടമയാണ് അതുകൊണ്ടുതന്നെ വൃത്തിയും ഭംഗിയുള്ളതുമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പൊതുസ്ഥലങ്ങള് അല്ലെങ്കിൽ വനത്തിൽ പോകുമ്പോള് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളാണെങ്കിൽ പൊതുവേ ഇപ്പോള് എല്ലാവരും വലിച്ചെറിയും അതിൽ നിന്നൊക്കെ മാറി നമ്മള് വളരെ ഭംഗിയും ചിട്ടയുമുള്ളതാക്കി മാറ്റണമെന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം വൃത്തിയുള്ള സമൂഹമാവു വൃത്തിയുള്ള സ്ഥല ഇടമാവു വൃത്തിയുള്ള ഒരു രാജ്യമാവു അങ്ങനെ പരസ്പരം എല്ലാവരും ചെയ്യുമ്പോഴാണ് വൃത്തിയുള്ള ഒരു സമൂഹംപോലും വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാ സാധിക്കും വനങ്ങൾ പ്രകൃതിരമണീയമാണ് അതിനെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ കടമയും കൂടിയാണ് നമുക്ക് ഇഷ്ട്ടമുള്ള അത് നശിക്കും അങ്ങനെ ആപത്തുകൾ വലിച്ചുവരുത്തുന്നതിനേക്കാൾ നല്ലത് നമ്മള് സൂക്ഷിക്കേണ്ടവ വൃത്തിയായി തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം